എനിക്ക് ഒരിക്കലും തോന്നാത്ത ഒരു കാര്യമാണ് കുറെ വിദ്യ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ എല്ലാം തത്ത്വങ്ങളും പാലിക്കുന്ന ആളാന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം സത്യസന്ധമായിട്ട് ഉള്ള കാര്യമാണ് കുറെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരു മനുഷ്യനെ നമുക്ക് അളക്കാൻ പറ്റില്ല ചിലപ്പോൾ അവര് ലോകപരിചയം ഉണ്ടാ ഉണ്ടാവണം എന്ന് ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ പോയി വലിയ കൾചർ അത് ഇത് എന്നൊക്കെ നോക്കുന്നുണ്ട് മാനേഴ്സ് കീപ്പിങ് അങ്ങനെ പക്ഷെ നല്ലൊരു മനസ്സിൻ്റെ ഉടമ നല്ല തത്വങ്ങൾ പാലിക്കുന്ന മനുഷ്യനാകണം എന്ന് ഒരിക്കലും ഇല്ല എൻ്റെ അനുഭവത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല നല്ലൊരു മനുഷ്യൻ ആവണമെങ്കില് അവൻ പിന്നെ കുറെ വിദ്യഭ്യാസം വേണമെന്ന് ഇല്ല തത്ത്വങ്ങൾ പാലിക്കണം എങ്കിൽ കുറെ വിദ്യാഭ്യാസം സാധാരണക്കാരനും കൂലിപണിക്കാരനും ഒക്കെ നല്ല മനസ്സ് ഉണ്ടായാൽ മതി എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തല് വിദ്യാസമ്പന്നൻ ആൾക്കാരുടെ മുന്നിൽ വെറും ഷോയും നടത്തുന്ന ആൾക്കാരുണ്ട് പക്ഷെ നല്ലവരും ഉണ്ട് കേട്ടോ ഒരു നൂറില് പത്ത് ശതമാനം ആൾക്കാരായിരിക്കും കൊള്ളില്ലാത്തത് ബാക്കി തൊണ്ണൂറ് ശതമാനവും നല്ല ആൾക്കാരാണ് അങ്ങനെ ഞാൻ കരുതുന്നത് അങ്ങനെയാണ് കേട്ടോ കാരണം ഇല്ലാത്ത എൻ്റെ അനുഭവത്തിലെ കാര്യമാണ് ഞാൻ കാണുന്ന കാര്യമാണ് അവർക്ക് കുറെ വിദ്യഭ്യാസം ഉണ്ടായിട്ടും ഒരാളെ ബഹുമാനിക്കാനും ഒരാളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് അറിയില്ല എങ്കിൽ പിന്നെ ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താ കാര്യം ഇപ്പം നമ്മള് എല്ലാം വിദ്യാഭ്യാസം ഉണ്ട് കുറെ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എല്ലാരോടും നല്ല പെരുമാറ്റുന്ന ഒരാളായിരിക്കണം നമ്മള്